ഹലോ എനിക്ക് ഡ്രൈവിങ്ങ് പഠിക്കാൻ താൽപ്പര്യമുണ്ട് ഇനി ഇപ്പോൾ ബൈക്കിന്റെ ലൈസൻസ്സും വേണം കാറിന്റെ ലൈസൻസ്സും വേണം അതെങ്ങനെ ബൈക്കിൻ മേൽ ബാലൻസ് ഒക്കെ ഓടിക്കും കാറ് ഞാൻ ചെറുതായിട്ട് എടുക്കും ആ ആ ആ പന്ത്രണ്ടായിരമൊ ആ ഓക്കെ ആ ആ ഓക്കെ ഉം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഫൈൻ നമുക്ക് ഈ ക്ലാസിന്റെ ടൈമിങ്ങൊക്കെ എങ്ങനെ ആണ് വരുന്നത് എനിക്ക് മോണിങ്ങില് ക്ലാസുണ്ടാവും അപ്പം എനിക്ക് ഇവനിങ് ഷെഡ്യൂള് എങ്ങനെയാണ് അതിന്റെ ടൈമിങ്ങ് വരുന്നത് എനിക്ക് നാലര ആ ഷെ ടൈം ഷെഡ്യൂളോക്കെയാണ് നാലര മുതല് ഞാൻ ഒക്കെയാണ്

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇതിന് ഞാൻ ഞാൻ എന്തൊക്കെയാണ് പ്രൂഫ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇത് ആ എന്നാൽ ശരി ഞാൻ വിളിക്കാം കെട്ടോ കൺഫർം ആയി ശെരി ശെരി